ഇപ്പോൾത്തെ താല്പര്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രെൻഡ്ന്ന് പറയുന്നേ ടെക്നോളജിയാണ് നാൾക്ക് നാൾ മാറിക്കൊണ്ടുവരുന്ന ടെക്നോളജിയാണ് എനിക്കിപ്പോൾ താൽപര്യമുള്ളൊരു ട്രെൻഡ് അതുപോലെ തന്നെ നമ്മുടെ സാ കൾച്ചറിലും ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷ്യസ്ഥാനങ്ങള് ന്ന് പറയുന്നത് ഇപ്പോളെനിക്ക് വേറെ രാജ്യങ്ങള് സന്ദർശിക്കാനും എല്ലാം ഇഷ്ടമാണ് അതിലിപ്പോൾ ഏറേ സന്ദർശിക്കാം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ മലേഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് എൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളായി ഞാൻ കണക്കാക്കുന്നത് അതല്ലാതെ വേറെ കുറെ സ്ഥലങ്ങളൊണ്ട് എന്നാലും പ്രൈമറിയായി കാണപ്പെടുന്നത് സിംഗപ്പൂർ മലേഷ്യ ഉഗാണ്ട എന്നീ സ്ഥലങ്ങളാണ് ഇതെല്ലാമാണ് എൻ്റെ ലക്ഷ്യസ്ഥാനങ്ങള് അവിടുത്തെ ജീവിത രീതികളും ബേക്കിംഗ് സിസ്റ്റം എല്ലാം കുറച്ചു വ്യത്യസ്തമാണ് സോ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനും അതെല്ലാംന്താണ് ഇതെല്ലാം വളരെ ട്രെൻഡ് ആയി കാണപ്പെടുന്നു